ഇപ്പോൾ ജീവിതത്തിലെ ഞാൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് പറയുക ക്യാഷിന് വേണ്ടി തന്നെയുള്ള വെല്ലുവിളികൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നേരിടുന്നത് അതുപോലെതന്നെ ഞാൻ നേരിടേണ്ടി വന്നത് ക്യാഷിന് വേണ്ടിയിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അത് ഞാൻ നേരിടാൻ എന്നെ സഹായിക്കുന്നത് എന്റെ വീട്ടുകാർ തന്നെയാണ് കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടാണ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടി വരുന്നത് അപ്പോൾ സാമ്പത്തികപരമായിട്ട് വന്നാൽ നേരിട നേരിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇപ്പോൾ കണ്ടുപിടിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഒക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെടും അപ്പോൾ അവരൊക്കെ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു അങ്ങനെ രക്ഷപ്പെടാനാണ് സാധ്യത സാധാരണ പതിവ് പിന്നെ ഒരു എന്താണ് പറയുക ഒട്ടും വയ്യാതായിക്കഴിഞ്ഞാൽ നമ്മള വീട്ടിൽ മാതാപിതാക്കളോട് ചോദിക്കുക അവരെ നമ്മൾ നല്ല രീതിക്ക് തന്നെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതാണെങ്കിലും നേരിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള വെല്ലുവിളികളാണ് കൂടുതലായിട്ട് ഞാനിപ്പോൾ നേരിട്ടിട്ടുള്ളത് കൂടുതൽ ഇപ്പോൾ എന്താണ് പറയുക ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കരുതുന്നത് അത് തന്നെയാണ് അത് നമ്മൾ നേരിടുന്നത് ഇത്തരത്തിലാണെന്നാണ് എൻറെ ഒരു നിഗമനം